ഇപ്പോൾ പൂന്തോട്ടത്തില് നമ്മൾ ഓരോ ചെടികളും എങ്ങനെയാണ് വയ്ക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ റോസാ ചെടികളാണെങ്കിൽ നമ്മളോരോ തടത്തിലും അതായത് അടുപ്പിച്ചാണ് റോസാ ചെടികളും കാര്യങ്ങളൊക്കെ വയ്ക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോസാ ചെടികളാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു ഭംഗി തന്നെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ ഇപ്പോൾ ഇടതൂർന്ന് നിൽക്കുകയാണെങ്കിൽ വലിയ ഭംഗിയും കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ റോസാ ചെടി മാത്രം ഒരു സെക്ഷനിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ട് തോന്നുകയും ചെയ്യും ഇപ്പോൾ പല രീതിയിലുള്ള കളറുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ഇപ്പോൾ ഡാലിയ മാത്രം ആണെങ്കിൽ ഡാലിയേൻ്റെ വിവിധ തരം ഡാലിയകൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ പല രീതീലുള്ള ഡാലിയകൾ ഉണ്ട് ഇപ്പോൾ വലിയ ഡാലിയ ചെറിയ ഡാലിയ നല്ല കളറുള്ള ഡാലിയ ഇപ്പോൾ ഓറഞ്ച് കളർ വയലറ്റ് കളർ വെള്ളക്കളറ് ഇങ്ങനത്തെ പല രീതിയിലുള്ള കളറുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുമിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നമ്മൾക്ക് പരിപാലിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ ഡാലിയ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ എപ്പോഴും ആവശ്യമുള്ളൊരു ചെടിയാണ് കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലും മഴ സീസണിലാണ് ഈ ഡാലിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ കിഴങ്ങാണ് നമ്മൾ കൂടുതലായിട്ടും കൊണ്ടുനടുക ആ കിഴങ്ങുകൊണ്ട് നട്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഞാൻ കൂടുതലായിട്ട് തീരുമാനിക്കുന്നത്